വിനോദ സഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നാടാണ് നമ്മുടെ കേരളം ഒരുപാട് വിനോദ സഞ്ചാരം സഞ്ചാരികൾ വർഷം തോറും നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നുമുണ്ട് ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ നാട്ടിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചു വർദ്ധിച്ചു വരുകയാണ് അത്രത്തോളം സൗകര്യങ്ങൾ നമ്മുടെ കേരളം വിനോദസഞ്ചാരികൾക്കായി ഒരുക്കിവെയ്ക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ വെച്ചു നോക്കുമ്പോൾ തന്നെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം വിദേശികളടക്കം ഒരുപാട് പേരാണ് എന്നും കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത് എല്ലാ ജില്ലകളിലും ഏകദേശം എല്ലാ ജില്ലകളിലും ഒരുപാട് പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉണ്ട് അതായത് വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാഹസിക കായിക വിനോദങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഇന്നും ലഭ്യമാണ് എങ്ങനെ എന്നുവെച്ചാൽ ജനകീയ വിനോദങ്ങളായാലും ട്രക്കിംഗ് ആയാലും ക്യാമ്പിങ് ആയാലും ഒരുപാട് വിനോദങ്ങൾ നമ്മുടെ നാട്ടിൽ വിനോദസഞ്ചാരികൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രങ്ങളാണ് കോവളം വർക്കല പൊന്മുടി വയനാട് പൈതൽമല അതുപോലെ ഒരുപാട് വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ പെരിയാർ വന്യജീവി സംരക്ഷണ കേന്ദ്രം ഇരവികുളം ദേശീയ ഉദ്യാനം സൈലൻറ് വാലി എന്നിവയൊക്കെ എന്നിവ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളാണ് നമുക്ക് ട്രക്കിങ്ങിനായി ഏറ്റവും പേരുകേട്ട ഒരു മലയാണ് മീശപ്പുലിമല ഈ മീശപ്പുലിമല എന്നത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നു പറയുന്നത് ആനമുടി ക ആനമുടിയാണ് അത് കഴിഞ്ഞ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഈ മീശപ്പുലിമല ഇത് മീശയുടെ രൂപത്തിലാണ് ഈ മലയുള്ളത് അതുകൊണ്ടാണ് ഈ മലയ്ക്ക് മീശപ്പുലിമല എന്ന പേര് വന്നത് അതുപോലെ ഈ വാട്ടർ ജല കായിക വിനോദങ്ങൾക്കായും ഒരുപാട് അവസരങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുക്കിയിട്ടുണ്ട് അതിനാണ് കോഴിക്കോട് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്ന ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് അതിൽ ഒരുപാട് കായലുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കായിക വിനോദമാണ് വാട്ടർ ഇത് ജല കായിക വിനോദം വിനോദം പിന്നെ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കാസർകോട് ജില്ലയിലെ റാണിപുരം ഒരുപാട് പേരാണ് പലയിടങ്ങളിൽ നിന്നായി റാണി പുരത്തേക്ക്